ഹലോ വിസ്താര എയർലൈൻസ് ആ ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒര് പെറ്റും കൂടെ ഉണ്ട് എൻ്റെ വളർത്ത് മൃഗമുണ്ട് അപ്പോൾ എനിക്ക് അതിന് എൻ്റെ പെറ്റിനേക്കൂടി എനിക്ക് ട്രാവലിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് താൽപര്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് എന്നതിനേക്കുറിച്ച് എനിക്കറിയാൻ താൽപ്പര്യമുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം പോസിബിളാണെങ്കിൽ എനിക്ക് എനിക്കും എൻ്റെ പെറ്റിനും യാത്ര വളരെ സുഖകരമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം വിളിച്ചതും അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം ഫുഡ്ഡും ഇപ്പം പെറ്റ് കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ മേയ്ൻറ്റേയ്ൻ ചെയ്യണ്ടത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസാണ് നിങ്ങൾ പറയുന്നത് അതെല്ലാം എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു